ഒന്ന് പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പതിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അഞ്ച് ആറ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത്